ഹലോ സിബി അതെ അതെ ബേക്കറിയല്ലേ ബേക്കറി അവിടെ എന്തൊക്കെ ഐറ്റംസാണ് ഉള്ളത് ഇന്ന് ഏത് ആണേലും കുഴപ്പമില്ല നല്ല സാധനം ആയിരിക്കണം എന്ന് മാത്രം ഹലോ എന്ത് ഒക്കെയാണ് ഉള്ളത് ഒന്ന് പറഞ്ഞേ ഇത് ഇതെല്ലാം നിങ്ങൾ പുറത്ത് നിന്ന് വരുത്തുന്നതാണോ അതോ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഈ ഉത്പന്നങ്ങള്ക്ക് നിങ്ങൾക്ക് ഉത്തരവാദിത്തം ഉണ്ട് നല്ലതാണ് നല്ലതിന് ഇതിന്റെയൊക്കെ വില ഒക്കെ എങ്ങനെയാണ്

ഇതിൽ എത്രയാണ് മൂപ്പ് ബീഫായിക്കോട്ടേ കേക്ക് ഐറ്റംസ് എന്തൊക്കെയാണ് ഉള്ളത് പ്ലം കേക്ക് മ് മ് മ്

ആ ശരി കടയിൽ തിരക്കുണ്ടോ ഇത്തിരി മധുരം കുറഞ്ഞ ഐറ്റംസ് എന്തൊക്കെയാണ് ഉള്ളത് ഷുഗര് ഫ്ര് ഷുഗര് ഫ്രീ ഷുഗര് ഫ്രീ ബ്രെഡ് ഒക്കെ ഉണ്ടോ അതെ അല്ലേ

ഞാൻ അങ്ങോട്ട് വിളിച്ചു ചോദിച്ചത് ന്നേ നമ്മൾ അങ്ങോട്ട് വരാം കടയിലോട്ട് വന്നിട്ട് ഏതൊക്കെയാണ് നല്ല ഐറ്റംസ് എന്നൊക്കെ നോക്കി നിങ്ങൾ ഓര്ഡര് ഒക്കെ ഓര്ഡര് ഒക്കെ പിടിച്ചു ചെയ്തു കൊടുക്കുമോ പുറത്ത് മ്ഹ് ഹ്

മ് ഓക്കേ എത്ര യ് അതെയോ മൂന്നര മൂന്നര അത് ശരി അങ്ങനെ ആണേൽ ഞാനങ്ങോട്ട് ഇറങ്ങാം നിങ്ങളുടെ ബേക്കറിയൊക്കെ ഒന്ന് സന്ദര്ശിച്ച് നമുക്കാവശ്യമുള്ള സാധനങ്ങളൊക്കെ സെലക്റ്റ് ചെയ്ത് ന്യായമായ വിലയ്ക്ക് ഒക്കെ ആണെങ്കിൽ

കൊള്ള ഒന്നും ഇല്ലല്ലോ കൊള്ള ഒന്നും ഇല്ല വാങ്ങി കഴിയുമ്പോൾ ബില്ല് വരുമ്പോളായിരിക്കും കണ്ണ് തള്ളുന്നത് അല്ലേ മ്ഹ് മ്ഹ് എന്നാൽ ആയിക്കോട്ടെ